ഹലോ ഹലോ ഞാ ജോണിൻ്റെ പേരെൻറ്റാണ് ടീച്ചറല്ലേ ആ ഞാന് വിളിച്ചത് എൻ്റെ മകൻ്റെ എക്സാമിന് കുറച്ച് ആ കുറഞ്ഞുപോയിരിക്കുകയാണിപ്പോള് മാർക്ക്സൊക്കെ അതിംപ്രൂവ് ചെയ്യാനായിട്ട് വേണ്ടിയായിരുന്നു ആഹാ ഓക്കെ ഓക്കെ ആ പിന്നേ നേരത്തെ എല്ലാ എക്സ്ട്രാ ക്ലാസസ്സ് എല്ലാം അവന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവന് കുറച്ചുകൂടെ പഠിക്കാനുള്ള ക്കാന് പറ്റുമായിരുന്നു അപ്പോഴതെങ്ങനെയാണ് ആ പിന്നേ ഏതൊക്കെ സബ്ജെക്റ്റാണ് ഇപ്പോള് ഉള്ളത് നിങ്ങള് ആ ഇല്ല ടീച്ചറേത് സബ്ജക്റ്റാണു പഠിപ്പിക്കുന്നത് അവൻ മാത്സിലായിരുന്നു നല്ലത് ബാക്കിയൊക്കെ കുറച്ച് മാർക്കിത്തിരി കുറവാണ് ആ ഞാനതു നോക്കാം ഞാനേ എൻ്റെ മകനെ ഇരുത്തി പഠിപ്പിക്കാമെന്നു വിചാരിച്ചു പിന്നെ ഞാന് ഇനി തൊട്ടവനെ ട്യൂഷനു വിടുന്നുണ്ട് അപ്പോഴങ്ങനെ അവനെ ഇമ്പ്രൂവ്വിയ്യാമെന്നു വിചാരിക്കിന്നു പിന്നെയീ ഇപ്പോഴീ പി ടി എ മീറ്റിംഗൊക്കെ എപ്പോഴാണു സാധാരണ വരുന്നത് ആ പി റ്റി എ മീറ്റിങ്ങൊക്കെ എപ്പോഴാണു സാധാരണ നടക്കുന്നത് ഓ ഓരോ സെമെസ്റ്ററാണ് ശരി ശരി അപ്പോള് അത് പരീക്ഷ ഒരു സെമ്മില് പരീക്ഷയൊക്കെ കാണത്തില്ലേ പിന്നേ വേറെ പിള്ളാരുണ്ട് ഇങ്ങനെ മാർക്ക് കുറഞ്ഞവര്

ഓക്കെ ശെരിയെന്നാ താങ്ക്യൂ